ഇന്ത്യൻ ശാസ്ത്രജ്ഞരെന്ന് പറയുമ്പോൾ നമുക്ക് പറയാവുന്ന ധാരാളം ഒട്ടനവധി ശാസ്ത്രജ്ഞർ സംഭാവന ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു വ്യക്തിയാണ് എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് കൂടാതെ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് നമുക്ക് എ പി ജെ അബ്ദുൽ കലാം തന്നെ ആണെന്ന് പറയാൻ പറ്റും എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് ഡ്രീം ഡ്രീം ഡ്രീംസ് കൺവെട്സ് ഇന്റു തോട്സ് സ്വപ്നം കാണുക സ്വപ്നം അതായത് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നിങ്ങളെ ഉറങ്ങാന് അനുവദിക്കാതിരിക്കുന്നതാണ് സ്വപ്നം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥയാണത് വിങ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ സ്വപ്ന ചിറകുകൾ എന്ന് മലയാളത്തിൽ പറയും ഇന്ത്യയിലെ യുവാക്കളെ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ച സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് എ പി ജെ അബ്ദുൽ കലാം അതുപോലെതന്നെ പലശാസ്ത്രജ്ഞരുണ്ട് ഗണിതശാസ്ത്രജ്ഞരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ നമ്പർ ഇന്ത്യയിൽ പല ധാരാളം അതിപ്രശസ്തരായിട്ടുള്ള ഗണിതശാസ്ത്രജ്ഞരുണ്ട് എന്നാൽ ഇന്ത്യയിലെ നമ്പർ വൺ ഗണിത ശാസ്ത്രജ്ഞരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞഴിഞ്ഞാൽ ഈറോഡ് ഗ്രാമത്തിൽ ജെയിന് ജനിച്ച ശ്രീനിവാസ രാമാനുജൻ ആണ് എന്ന് നമുക്ക് പറയേണ്ടിവരും ശ്രീനിവാസരാമാനുജൻ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനാണ് വളരെ പ്രശസ്ഥനായാ വ്യക്തിയാണ് ലോകത്തിൻ്റെ മുൻപിൽ അഭിമാനപുരസരം ഇന്ത്യയ്ക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീനിവാസ രാമാനുജൻ അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ രാമാനുജൻ നമ്പർ എന്നൊരു നമ്പർ തന്നെയുണ്ട് ആയിരത്തി എഴുനൂറ്റി ഇരുപത്തി ഒൻപത് ആണ് രാമാനുജൻ നമ്പർ ശ്രീനിവാസ രാമാനുജൻ്റെ നമ്പറാണ് അതായത് രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുനൂറ്റി ഇരുപത്തി ഒൻപത് ആണ് പല ശാസ്ത്രജ്ഞരെ കുറിച്ച് പറയാനുണ്ട് ഹോമിജെ ബാബ എ പി ജെ നേരത്തെ പറഞ്ഞ എ പി ജെ അബ്ദുൽ കലാം ശ്രീനിവാസ രാമാനുജൻ എം എസ് സ്വാമിനാഥൻ കാർഷികശാസ്ത്രജ്ഞൻ ആയിരുന്നു ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗണിത ശാസ്ത്രഞ്ജരെയും ഇന്ത്യയിലെ ശാസ്ത്രഞ്ജരെയും ഗണിത ശാസ്ത്രഞ്ജരെയും കുറിച്ച് പറയാനാണ് അതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നത് എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചും ശ്രീനിവാസ രാമാനുജനെ കുറിച്ചുമാണ്